ഞാൻ വർക്ക് ചെയ്യുന്നത് സേവ് യുവർ ഫാമിലി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിലാണ് അപ്പം അതിൽ നമ്മൾ ഫാമിലീസിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഫാമിലീസിനെ നമ്മൾ എടുത്ത് അവരെ സഹായിക്കാം അവരെ സഹായിക്കാം എന്നാണ് ഫാമിലീസിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രോജക്റ്റാണിത് ഇപ്പോൾ നമ്മളൊരു ഫാമിലീസിനെ സെലക്റ്റ് ചെയ്യുന്നത് പല മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി വേണം ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള കുടുംബങ്ങളായിരിക്കണം എന്നുള്ളത് രണ്ടെണ്ണം നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട രണ്ട് മാനദണ്ഡങ്ങളാണ് അല്ലാതെ വരുന്നതാണ് ഒന്നുകിൽ എയ്ഡ്സ് ടി ബി പോലത്തെ മാറാരോഗങ്ങ എച്ച് ഐ വി ക്യാൻസർ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റി ഫിസിക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റീസ് ആയിട്ടുള്ള പേഷ്യൻസ് പിന്നല്ലെങ്കിൽ വിധവകൾ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ അബാൻഡം ആയിട്ടുള്ള ലേഡീസ് അപ്പം ഇങ്ങനെ വരുന്ന ക്രൈറ്റീരിയാസ് ആണ് വേറെ പിന്നെ വേറൊന്ന് വരുന്ന വേറൊരു സെറ്റ് ഓഫ് ക്രൈറ്റീരിയാസാണ് അഞ്ച് സെൻ്റിൽ താഴെ ഭൂമി കാണാവുള്ളൂ ശുദ്ധ ജലം ദൗർലഭ്യം ഇല്ലായിരിക്കും അവർക്ക് പ്രോപ്പറായിട്ട് പുറത്ത് പോയി ജോലി ചെയ്ത് സമ്പാദിക്കാൻ പറ്റുന്ന ഒരാൾ അവർടെ വീട്ടിൽ കാണില്ല അപ്പോൾ പ്രോപ്പറയിട്ടുള്ള സാനിറ്റേഷൻസ് ഫെസിലിറ്റീസ് കാണത്തില്ല അപ്പോ ഇങ്ങനെയുള്ളത് വച്ചിട്ടാണ് നമ്മൾ ആ ഫാമിലീസിന സെലക്ട് ചെയ്യുന്നത് ഫാമിലീസിനെ സെലെക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ ആറു വർഷത്തേക്കാണ് സഹായിക്കുന്നത് നമ്മൾക്കും ബെനിഫാക്ടര് തരുന്ന എമൌണ്ടിൽ നിന്ന് കൊറച്ച് എമൌണ്ട് എല്ലാ വർഷവും നമ്മൾ വർഷത്തിൽ കൊടുക്കും തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഒരു കണ്ടിന്യൂഎസ്സ് ആയിട്ട് ചെയ്തു ആറ് വർഷാവുമ്പോഴത്തേക്ക് തീരും